ആ ഹലോ ആ മേഡം ഹലോ കേൾക്കാമോ മേഡം ആ മേഡം എനിക്ക് ഭയങ്കര രണ്ടു ദിവസമായിട്ട് ഭയങ്കര ചുമയും ജലദോഷവും പനിയുമാണ് ഇതിപ്പം രണ്ടുദിവസമായി ചുമയും ജലദോഷവും തുടങ്ങിയിട്ട് ഒരു ഒരാഴ്ചയാകും അത് ഞാൻ കുറച്ചു ഗുളികയൊക്കെ കഴിച്ചിട്ട് കുറയും കുറയും എന്നു വിചാരിച്ചിരുന്നു ആ ഓക്കെ അങ്ങനെ വേറെ ബുദ്ധിമുട്ടെന്നുപറയാൻ എനിക്കിപ്പോൾ പനി വന്നപ്പം എനിക്കുതോന്നുന്നു എൻ്റെ ബി പിയൊക്കെ ഹൈയാകണതുപോലെ എനിക്ക് തോന്നണു അതിപ്പം ചെക്ക് ചെയ്യണോ അപ്പം നമ്മൾ മൂന്നുദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരണോ ആ ഓക്കേ ഓക്കേ ശരി താങ്ക് യൂ